മലയാളത്തിൽ സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും ഇടയ്ക്ക് ഇടയ്കൊക്കെ ബുദ്ധിമുട്ടുകൾ സംഭവിക്കാറുണ്ട് കാരണം പല ഇംഗ്ലീഷ് വാക്കുകൾ നമ്മൾ പറയുമ്പോഴത്തേക്കും അത് മലയാളത്തിൽ തർജമ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുമ്മണ്ട് അതുകൂടാതെ പല മലയാളം വാക്കുകൾ എപ്പോഴും എഴുതുമ്പോഴും നമ്മൾക്ക് എന്നാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് അക്ഷരത്തെറ്റ് സംഭവിക്കാറൊണ്ട് അത് നമ്മക്ക് സാധാരണയായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാ എല്ലാവരും എല്ലാവരും നല്ല രീതിയിലങ്ങു സംസാരിക്കുന്നവരോ എഴുതുന്നവരോ ഒന്നുമല്ല നമുക്ക് ഇടയ്ക്കിടയ്ക്കിടകൊക്കെ തെറ്റ് പറ്റുന്നവരും തെറ്റുപറ്റുന്നതുണ്ട് എനിക്കും എൻ്റെ സൈഡിൽ നിന്ന് പറയാനാണെങ്കിൽ എനിക്കും നല്ല പോലെ മലയാളം സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും ഇടയ്ക്കിടക്കൊക്കെ അതിൽ വേറെ ഭാഷയൊക്കെ കയറി വരും അപ്പം എന്താണ് തെറ്റും സംഭവിക്കാറുണ്ട് അപ്പം അത് കൂടുതലും ഞാൻ തിരുത്താനായിട്ട് ശ്രമിക്കാറുണ്ട് ഞാൻ എന്നെത്തന്നെ ഇങ്ങനെ തിരുത്താൻ തിരുത്തി കൊണ്ടിരിക്കുകയാണ് സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും നമ്മൾ പെട്ടന്ന് ഒരു കാര്യം എഴുതുമ്പോഴാണെങ്കിലും ഉറപ്പായിട്ടും എന്താണ് മലയാളത്തിൽ നമ്മൾക്ക് തെറ്റ് പറ്റും ചില അക്ഷരങ്ങൾ അതുപോലെ പാടാണ് അതുപോലെ തന്നെ മലയാളം എഴുതാൻ പാടാണെന്നു പറയുന്നത് അതുപോലെ തന്നെ ചില അക്ഷരങ്ങൾ എഴുതാൻ നല്ല പാടാണ് എനിക്ക് ഇപ്പോഴും ഞാൻ പല പല രീതിയിൽ പല ഭാഷ സംസാരിക്കുന്ന ഒരാൾ ആയതുകൊണ്ട് എനിക്ക് സംസാരിക്കുമ്പോൾ എല്ലാ ഭാഷകളും ഒരുമിച്ച് കയറി വരാറുണ്ട് അത് ഏത് രീതിയിലാണെന്ന് നമുക്കൊന്നും പറയാനും പറ്റത്തില്ല എഴുതുന്ന സമയത്തും അതുതന്നെയാണ് ഞാൻ എഴുതുമ്പോഴും തെറ്റും നല്ല പോലെ സംഭവിക്കാം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ ഭാഷയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ എഴുതുന്നതൊക്കെ ഞാൻ ഒരിക്കലും ഒരു നല്ല അച്ചട്ടായിട്ട് മലയാളം സംസാരിക്കുന്നതോ എഴുതുന്ന ഒരാൾ അല്ല എനിക്ക് ഇടയ്ക്ക് തെറ്റൊക്കെ പറ്റാറുണ്ട് ഇടയ്ക്ക് എഴുതുന്ന സംഭവങ്ങളൊക്കെ മാറി പോവാറുണ്ട് അക്ഷരങ്ങളൊക്ക അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് പോവാറൊക്കെ ഉണ്ട് ഒരു സാധാരണ മനുഷ്യന് സംഭവിക്കുന്നത് പോലയൊക്കെത്തന്നെ എനിക്കും സംഭവിക്കാറുള്ളു തെറ്റൊക്ക പറ്റാറുള്ളു അല്ലാതെ അതിൽ കൂടുതൽ എന്താണ് വേറെ തെറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിക്കത്തില്ല ഒരു സാധാരണ ഒരു മലയാളിക്ക് പറ്റുന്നപോലെ തന്നെ ചില ചില ചെറിയ ചെറിയ രീതിയിലുള്ള തെറ്റ് സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും ഉണ്ടാവാറുണ്ട്